ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നെയ്ത്തെന്ന് പറയുന്നത് എനിക്ക് നേരിയത് സാരിയിൽ ഒരുപാട് തരം വെറൈറ്റി കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതിൽ ഇപ്പോൾ ഒരുപാട് പണ്ട് നേരിയത് സാരി എന്ന് പറയുമ്പം കസവ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കസവും കരയും ഒക്കെ ഉണ്ട് അതല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു ഇപ്പം മ്യൂറൽ പെയിൻ്റിങ്ങും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നു തുടങ്ങി പക്ഷേ അതിൻ്റെ അപ്പുറം അതിന് അതിനേക്കാൾ ഉപരി ഒരുപാട് തരം സാധനങ്ങൾ ഉപയോഗിച്ച് അതിന് വ്യത്യസ്തമാക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമാണ് ഈ കസവും കമ്പിളി നൂലും ഉപയോഗിച്ച് എംബ്രോയ്ഡറി ചെയ്യും പോലെ ചെയ്തെടുത്തു അതിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ബട്ടൻസ് ബട്ടൺസ് കൊണ്ടും നമുക്ക് അതിൽ തുന്നി പിടിപ്പിച്ച് ഒരേ കളറിലുള്ള ബട്ടൺസ് കൊണ്ട് പൂവിൻ്റെ ഷേപ്പിലും പിന്നെ ഇലകളും ഒക്കെ പച്ചകളറിൽ അങ്ങനെ ഓരോ കളറിൽ കളറ് ബട്ടണുകൾ ഉപയോഗിച്ചു പല പലതരത്തിലുള്ള രൂപങ്ങളായാലും ചെടി പൂവ് ഒക്കെ അല്ലെ അല്ലാതെ ദൈവങ്ങളുടെ പടമായാലും അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നേരിയത് സാരിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് ത്ത് അറിയാം മറ്റ് സാരികളെ പോലെ അല്ലല്ലോ ആ വെള്ള കളറിൽ അല്ലെങ്കിൽ ഒരു ക്രീം കളറിൽ അത് അതെടുത്ത് കാണിക്കും അപ്പം നല്ല ഭംഗിയായിരിക്കും ബോർഡറിലായാലും മുന്താണിയിലായാലും ഒക്കെ നല്ല നല്ല വർക്ക് ചെയ്തു നമുക്ക് കൊടുക്കാൻ പറ്റും എംബ്രോയിഡറി നൂല് കൊണ്ടും ചെയ്യാം പിന്നെ കമ്പിളി നൂലും കൂടെ ഇതിൽ ഉപയോഗിക്കണമെന്ന് എനിക്ക് അത് അങ്ങനെ കണ്ടു വന്നിട്ടില്ല കമ്പിളി നൂല് നമ്മൾ അധികം കണ്ടിട്ടില്ല എംബ്രോയിഡറി വർക്ക് പോലെ അല്ല കമ്പളി നൂലും കസവ് നൂലും ഒക്കെ കണ്ടു നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്